അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാനത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവും അപ്പോൾ സൃഷ്ടിപരമായ ചില കാര്യങ്ങൾ വരയ്ക്കാൻ നമുക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് സൃഷ്ടി സൃഷ്ടിപരമായ ബുദ്ധിമുട്ടായി പ്രതി സന്ധികളായിട്ട് നമുക്ക് പറയാം പറ്റുംന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് ക്ക ഒരു മുഖം ഒക്കെ വരക്കുമ്പോൾ കണ്ണുകൾ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഞാൻ സൃഷ്ടി സൃഷ്ടിപരമായ പിറ പ്രതിബന്ധങ്ങളായിട്ട് കരുതുന്നു